ഈ ഫോണിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ക്ലാരിറ്റി വളരെ കുറവാണ് അതുപോലെതന്നെ നമ്മൾ ഫോൺ കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ തന്നെ ചാർജ് ഒരുപാട് നഷ്ടപ്പെടും നമുക്കിപ്പോൾ ഒരു വീഡിയോ കാണുമ്പോഴോ ക്ലിയർ ഇല്ല അതുപോലെതന്നെ സൗണ്ട് സിസ്റ്റം അധികം കേൾക്കില്ല ക്ലാരിറ്റി ഒന്നുമില്ല